വയനാട് ജില്ലയിലെ ഭരണഘടന രാഷ്ട്രീയമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പോഴത്തെ പിന്നെ ഒരു മെംബര് തന്നെ ആയാല്പ്പോലും മെംബർമാർക്ക് നമ്മള് ഒരു വീടു പോലും ഇല്ലെങ്കില് വീടു പോലും തരാൻ കഴിയില്ല കാരണം മെംബര്മാര് പറയും നിങ്ങളപേക്ഷ വച്ചോളൂ വീടിന്ന് പാസ്സാവും അല്ലെങ്കില് നാളെ പാസ്സാവുമെന്ന് ആ ഒരിക്കലും പിന്നെ ജില്ലയിൽ നിന്നുള്ള ഏത് പിന്നെ ഇതു പറയാണെങ്കിലും എം പി മാരാണെങ്കിലും പിന്നെ ജില്ലയിലെ എം എൽ എമാരാണെങ്കിലും എം എൽ എ നല്ല എം എൽ എ ആണു കെട്ടോ കേളു എം എൽ എനെ കുറിച്ചു പറയുകയാണെങ്കില് അദ്ദേഹം ഒരു നല്ല എം എൽ എ തന്നെയാണ് കാരണം റോഡിൻ്റെ വികസനമാണെങ്കിലും വീടു കൊടുക്കുന്നതും ജോലിക്കു കൊടുക്കുന്നതാണെങ്കിലും എം എൽ എനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് കാരണം ഇവിടത്തെ വേറെ മെംബറെക്കുറിച്ച് പറയുന്നതിനെക്കാട്ടിയും നല്ലത് നമ്മുടെ എം എൽ എന്നെയാണ് എം എൽ എമാരെല്ലാം കാരണങ്ങളും കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുതന്നെ ഒരു റോഡില്ലെങ്കിൽ റോഡിൻ്റെ വികസനം അതുപോലെ ഒരു വീടില്ലാത്തവർക്കു വീട് ഇതൊക്കെ കൊടുക്കും കാരണം മെംബര്മാര് പറഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത മെംബറാണ് നമ്മുടെ നാട്ടിലുള്ളത് കാരണം നമ്മളെപ്പോലുള്ള പാവങ്ങൾക്കൊരു വീടോ ഒരു സാധനം ഇതുവരെ ഞങ്ങക്കൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങള്ക്കൊരു വീടു പോലും ഇല്ല നല്ല വീട് ഞങ്ങളെങ്ങനെയാണു താമസിക്കുന്നതെന്നു നമ്മള്ക്കേ അറിയുള്ളൂ കാരണം അവർക്ക് അവരെ കയ്യില് പൈസ വരുന്നത് ഏത് പൈസ വരുന്നുണ്ടെങ്കില് അവര് അതിനുവേണ്ടി അങ്ങോട്ട് ഓടിപ്പോവും കാരണം നമുക്കൊന്നും കിട്ടില്ല